ഇന്ന് നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതായിട്ട് വരുന്നുണ്ട് കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം തന്നെയാണ് നമുക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഏതൊരു ഏതൊരു ആളുടെ മുന്നിലും പോയി നിൽക്കാനും അതുപോലെതന്നെ എന്ത് കാര്യം വന്നാലും പെട്ടെന്ന് തന്നെ ചെയ്തുതീർക്കാനും വിദ്യാഭ്യാസം കൊണ്ട് നമുക്കൊരു നേട്ടം തന്നെയാണ് എന്നാലിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര്ക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവോ അതുപോലെ എന്താണ് നമ്മള് ചെയ്യേണ്ടത് ഇപ്പോള് ബാങ്കിലാണെങ്കിലും അതുപോലെ പഞ്ചായത്തിലാണെങ്കിലും എവിടെ പോയാലും എന്തുചെയ്യണം എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു ഒരു നിശ്ചയം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവരതിന് മടിക്കുന്നു പോകാനും മറ്റുള്ള ആൾക്കാരുമായി ഇടപെടാനുമൊക്കെ അവര് അവർക്കൊരു മടിയാണ് അപ്പോള് അതവരുടെ വലിയൊരു പ്രശ്നം തന്നെയാണ് അവര് നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു പ്രശ്നം തന്നെയാണ് അവർക്ക് മതിയായൊരു വിദ്യാഭ്യാസം നൽകുകയാണെങ്കിൽ അവർക്ക് ഈയൊരു ഈയൊരു പേടിയിൽ നിന്നും അവർക്ക് പുറത്തേക്ക് കടക്കാന് പറ്റും അതുപോലെതന്നെ ഗ്രാമീണ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തെന്നാല് അവര്ക്ക് ഇപ്പോള് വിദ്യാഭ്യാസം കിട്ടിയാൽ തന്നെ വീട്ടിൽ നിന്നും പറഞ്ഞുകൊടുക്കാൻ അവരുടെ വീട്ടുക്കാര്ക്ക് ഒരറിവുമുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ പിന്നെ അവർക്ക് സ്കൂളുകളിലോ അതുപോലെ അവരുടെ കയ്യില് ഫോണ് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ഇന്ന് ഫോണുണ്ടെങ്കില്ത്തന്നെ നമുക്കൊരുപാട് അറിവും എല്ലാം കിട്ടുമല്ലോ അപ്പോള് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടിപ്പോള് നമുക്ക് മാധ്യമങ്ങളിലൂടെ ഇപ്പോള് സോഷ്യൽ മീഡിയ വഴിയാണ് എല്ലാ കാര്യങ്ങളുടെ അറിവും അതുപോലെ എന്താണ് അപ്ഡേറ്റ് ഇപ്പോള് ഓരോ ദിവസം എന്ത് നടക്കുന്നു അതൊക്കെ ഫോണിലൂടെ നമുക്ക് അറിവ് ലഭിക്കും എന്നാൽ ഇന്ന് ഗ്രാമീണവാസികൾക്ക് ആ ഫോണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അതുപോലെ ഫോണില് എന്താണ് ചെയ്യേണ്ടത് എന്നൊരറിവും ഈ വിദ്യാഭ്യാസില്ലായ്മ കൊണ്ട് തന്നെയാണ് ഫോൺ ഉപയോഗിക്കാനും നമുക്ക് പറ്റാത്തത് ഇപ്പോള് എല്ലാ ഫോണും ഏതൊരു ഫോണിലാണെങ്കിലും ഇംഗ്ലീഷ് ഉണ്ടാകും എങ്കിൽപ്പോലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് ചെയ്യണമെങ്കില്ത്തന്നെ നമുക്ക് അറിവുണ്ടാകണം അതിനെക്കുറിച്ച് അത് അതിനോട് അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസമെന്ന് പറയുന്നത് ഒരറിവ് തന്നെയാണ് നമുക്കിപ്പോള് നഗരപ്രദേശങ്ങളില് എല്ലാവര്ക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഏകദേശം ആൾക്കാര്ക്കുമിപ്പോള് കിട്ടുന്നില്ല ആദ്യമൊന്നും ഒരുപാട് തീരെ ഒരു അറിവില്ലായ്മ വിദ്യാഭ്യാസക്കുറവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അവർക്കും ഒരുപാട് നേട്ടങ്ങള് കൈവരിക്കാന് പറ്റിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയില് നേട്ടങ്ങൾ കൈവരിക്കാന് പറ്റിയിട്ടുണ്ട്